ഹലോ രാഹുലെ പാസ്പ്പോട്ടിന് അപേക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നില്ലെ പാസ്പ്പോട്ടിന് അപേക്ഷകൾ ഓൺലൈനായിട്ട് മാത്രമേ ഇപ്പോൾ സ്വീകരിക്കുന്നുള്ളു ഏജന്റുമാർ മുഖേന അപേക്ഷ സ്വീകരിക്കില്ല അപ്പോൾ ഇനി ഏജെന്റ് ഓൺലൈനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ചടയമങ്കലം അക്ഷയ കേന്ദ്രത്തിൽ വന്ന് അപേക്ഷിക്കാൻ പറ്റും പിന്നെയെന്ന് പാസ്പ്പോട്ട് ഫീസ്സ് മുപ്പത്താറു പേജുള്ള ബുക്ക്ലെറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപയും അറുപത് പേജുള്ളതിന് രണ്ടായിരം രൂപയുമാണ് ഇതിൽ മുതിർന്ന പൗരന്മാർക്ക് എട്ട് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്കും ഫീസിൽ പത്ത് ശതമാനം ഇളവുണ്ട് പിന്നേ പാസ്പ്പോട്ട് ഫീ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത് പാസ്പ്പോട്ട് അപേക്ഷകൾ പരിശോധിക്കുന്നതിനും സീകരിക്കുന്നതിനും ഓരോ പാസ്പ്പോട്ട് ഓഫീസിന് കീഴിലും ഒന്നോ അതിലധികമോ പാസ്പ്പോട്ട് സേവ കേന്ദ്രങ്ങളുണ്ട് അപേഷകനെ തൻ അപേഷകന് തൻ്റെ പാസ്പ്പോട്ട് ഓഫീസിൻ്റെ പരിതിയിലുള്ള ഏത് സേവ കേന്ദ്രവും തിരഞ്ഞെടുക്കാൻ പറ്റും നിശ്ചിത സമയത്ത് ആവശ്യമായ രേഖകളുമായി സേവ കേന്ദ്രത്തിൽ എത്തണം ആലുവ കോട്ടയം ആലപ്പുഴ കവരത്തി എന്നിവിടങ്ങളിലാണ് പാസ്പ്പോട്ട് സേവ കേന്ദ്രങ്ങൾ